ഹലോ ഇത് ക്യാബിൻ്റെ ഡ്രൈവർ അല്ലായിരുന്നോ ഞാൻ നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങളെ വണ്ടി ഒന്ന് ബുക്ക് ചെയ്തായിരുന്നു വിളിച്ചു ഇപ്പോൾ അരമണിക്കൂർ ആയി നിങ്ങൾ ഇതുവരെ ആയിട്ടും സ്ഥലത്തെത്തിയിട്ടിലായിരുന്നു അതെന്താന്നു പറയുക ആയിരുന്നെങ്കില് നിങ്ങൾക്കൊന്നു ബ്ലോക്കിൽ ആണെങ്കിൽ നിങ്ങൾക്കൊന്നു വിളിച്ചു പറയണ്ട ഒരു ഉത്തരവാദിത്തം ഇല്ലേ ഞാൻ ഇവിടെ കോഴിക്കോട് ബസ്റ്റാന്റില് ഒര് അരമുക്കാൽ മണിക്കൂറായിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളെ വണ്ടിയും നോക്കി ഇതേടെയാണു നിങ്ങളെ ഈ വഴിക്കൊന്നും കണ്ടുമില്ല എന്ന ഒന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ എങ്കിലും നിങ്ങൾ ഒന്ന് കാണിക്കണ്ടേ ആ ഓക്കേ ഓക്കേ ഞാൻ ബ്ലോക്കിൽ ആയിരുന്നു ബ്ലോക്കിൽ ആണെങ്കിൽ ഒന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ അങ്ങനെയൊക്കെ കാണിക്കണ്ടായിരുന്നോ ഞാൻ ഇവിടെ കുറെ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നിങ്ങളെയും കാത്തു അത്കൊണ്ടായിരുന്നു ഒരേ ഇനിയിപ്പം നിങ്ങൾ എത്തുക പെട്ടെന്ന് എത്തില്ലേ ആ ഓക്കെ ഓക്കെ ആ ബ്ലോക്ക് ആ ഓക്കേ ഓക്കേ ബ്ലോക്ക് കേറുമ്പോൾ വന്നാൽ മതി ആ നമ്മള് കോഴിക്കോട് സ്റ്റാന്റിൽ ഉണ്ട് പരമാവധി ഒന്ന് പെട്ടെന്ന് ഒന്ന് വരാൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ നമ്മള് കുറെ നേരായി ഇങ്ങനെ നിൽക്കുന്നു കുറെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും പിടിച്ചു കുറെ നേരായി നിക്കുന്നു പരമാവധി ഒന്ന് പെട്ടെന്ന് വരാൻ ശ്രമിക്കുക കേട്ടോ ആ ഓക്കേ